മാധ്യമങ്ങളിലും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലും മലയാള ഭാഷയ്ക്ക് മതിയായ പ്രാതിനിധ്യമുണ്ടെന്ന് തീർച്ചയായും ഞാൻ കരുതുന്നു പ്രാദേശികമായ നാടൻ ഭാഷകളിലൂടെയാണ് മലയാള ഭാഷ വളർന്നു വന്നതും വികസിച്ച് വന്നതു ഇന്ന് നാം കാണുന്ന അച്ചടി ഭാഷയിലേക്ക് പരിവർത്തിപ്പിക്കപ്പെട്ടത് പണ്ട് കാലത്തെ വിദ്യാഭ്യാസ രീതിയായിരുന്ന ഓത്തു പള്ളികളിലും പള്ളിക്കൂടങ്ങളിലും മലയാള ഭാഷയുടെ പ്രാചീന രൂപങ്ങൾ നമക്ക് കാണാൻ കഴിയു അതുപോലെ അച്ചടി അച്ചടി സമ്പ്രദായം വന്നതോടു കൂടി മലയാള ഭാഷ കൂടുതൽ വികാസം പ്രാപിച്ചു സാഹിത്യ സാംസ്കാരിക രംഗത്തു ഒട്ടനവധി കൃതികൾ മലയാള ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് ഇതിലൊക്കെ നമുക്ക് ഭാഷയ്ക്ക് നമ്മുടെ ഭാഷയുടെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും